സ്കൂളുകളില് കുട്ടികളൊക്കെ ആവശ്യത്തിന് യൂറിൻ പാസ് ചെയ്യാന് മൂത്രപുരകളും പിന്നെ കുടിക്കാനായിട്ട് അവിടെ വെള്ളവും പഠിക്കാന് പുസ്തകങ്ങള് ഇരിക്കാനായിട്ട് കസേരയും മേശയുമൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് നല്ല ഫുഡും ഒക്കെ സ്കൂളുകളിലുണ്ടാകും പിന്നെ അതൊക്കെയാണ് ഈ സ്കൂളുകളിലിത് പിന്നെന്തെന്ന് വെച്ചാല് സ്കൂളുകൾ കുട്ടികൾക്ക് ആവശ്യം ആവശ്യമായ സാധനങ്ങളൊക്കെയാണ് സ്കൂളുകളിൽ കൊടുക്കുന്നത് പഠിപ്പിക്കാൻ അദ്ധ്യാപകരുണ്ട് അതുപോലെതന്നെ അവർക്ക് കളിക്കാനായിട്ട് സാധനങ്ങളുണ്ട് ഗ്രൗണ്ടുകളുണ്ട് ഓരോരോ ആവശ്യങ്ങളൊക്കെ അവർക്ക് ലൈബ്രറി ഉണ്ട് പുസ്തകങ്ങളുണ്ട് അവർക്കാവശ്യമായ പല എല്ലാ സാധനങ്ങളും സ്കൂളുകളിലുണ്ട് അവർക്ക് ആവശ്യമായ അവർക്ക് ദാഹിക്കുമ്പോള് കുടിക്കാനായിട്ട് വെള്ളം വരെ ഇപ്പോള് സ്കൂളുകളില് സംവിധാനം ചെയ്യുന്നുണ്ട് അതുപോലെതന്നെ എന്താണ് നല്ലൊരു നല്ല സ്കൂളിന് ആവശ്യം നല്ല അധ്യാപകര് നന്നായി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാകും അതുപോലെതന്നെ അവർക്ക് നല്ലതായ പുസ്തകങ്ങള് ഭക്ഷണം കസേര മേശ എന്നിവയെല്ലാമുണ്ടാകുകയും ചെയ്യുന്നു അതുപോലെതന്നെ അവർക്ക് വാഷ് ചെയ്യാനായിട്ട് ടോയ്ലെറ്റുണ്ട് പല പല സാധനങ്ങളുണ്ട് ചെയ്യുന്നുണ്ട് പിന്നെയെന്നുവെച്ചാല് ഒരു ഗ്രാമത്തില് തന്നെ നല്ല സ്കൂളുകള് സ്കൂള് തന്നെ വേണമെന്ന് ആവശ്യമുണ്ട് പിന്നെ നന്നായി പഠിക്കുന്ന കുട്ടികളിപ്പോള് തന്നെ ചെയ്യുന്നത് അതുപോലെതന്നെ എന്താണ് കുട്ടികൾക്ക് ഇന്ന് ആവശ്യമായ കാര്യമെന്നുവെച്ചാല് അവർക്ക് ഫുഡ് അതുപോലെതന്നെ പുസ്തകങ്ങള് എഴുതാൻ പേന ബുക്ക് അങ്ങനെ പല കാര്യങ്ങളൊക്കെ മാതാപിതാക്കള് ചെയ്തുകൊടുക്കും പിന്നെ അവരെ വിടുന്ന സ്കൂളിനെക്കുറിച്ചുള്ള അറിവൊക്കെ നമ്മുടെ മാതപിതാക്കള്ക്കുണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ വിടുകയും ചെയ്യുന്നത് പിന്നെ എന്നുവെച്ചാല് അവര് പഠിക്കുന്ന ഓരോ കാര്യത്തെക്കുറിച്ചും മാതാപിതാക്കളോട് അവര് വന്നുപറയുകയും ചെയ്യുന്നത് സ്കൂളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ പറയും വിട്ടിൽ വന്ന് അമ്മമാരോടും അമ്മമാരോടൊക്കെ പറയുകയും ചെയ്യും പിന്നെയെന്നുവെച്ചാല് അവർക്കിപ്പം ടോയ്ലറ്റിലൊക്കെ പോകണമെങ്കില് തന്നെ അവർക്ക് നല്ലൊരു വാഷ് റൂം വേണം നല്ല വൃത്തിയുള്ള ടോയിലറ്റായിരിക്കും ചിലപ്പോള് ഉണ്ടാകുന്നത് തന്നെ പിന്നെ അവർക്ക് ഇരിക്കാൻ നല്ലൊരു കസേര കസേര എഴുതാൻ നല്ല മേശ ഉച്ചയ്ക്ക് നല്ല ഫുഡ് അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇപ്പം മെച്ചപ്പെടുത്തുന്നതിന് കുറേ കാര്യങ്ങളുണ്ട് സ്കൂളുകളില് ഇപ്പോള് അധ്യാപകര് നന്നായി പഠിപ്പിക്കുകയും പുസ്തകമെന്ന് വച്ചാല് അവർക്ക് നല്ലത് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു പിന്നെയെന്നുവെച്ചാല് ഫുഡ് അതുപോലെതന്നെ അവർക്ക് ആവശ്യമായ പല കാര്യങ്ങളും ഇന്ന് ഇന്ന് സ്കൂളുകളിൽ ചെയ്തുകൊടുക്കാന് പറ്റുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ നല്ലൊരു സ്കൂളിൽ ഇതൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പുസ്തകങ്ങളൊക്കെ അവർക്ക് ആവശ്യമുള്ള പുസ്തകം തന്നെയൊക്കെ ചെയ്തുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്